സ്കൂളിൽ വിദ്യാർത്ഥികളിൽ കായിക പ്രവർത്തികളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ സ്കൂളിൽ അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഓടാനാണ് ഓടാനാണ് അവൻ്റെ കഴിവെങ്കിൽ എന്താ പറയുക സ്കൂളുകളിൽ ഓട്ടമത്സരങ്ങൾ അങ്ങനെത്തെയൊരു കായിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോഴ് അവന് അവൻ്റെ കഴിവ് ഓടാനാണെങ്കിൽ ആ ഓട്ട മത്സരത്തിൽ ചാടുക അപ്പം അത് വഴി ടീച്ചേഴ്സ് അധ്യാപകർ അവൻ്റെ കഴിവ് മനസ്സിലാക്കുകയാണെങ്കിൽ എന്താ പറയുക അതിന് ശേഷം അവനാൻ ആ ഒരു ആ ഒരു കായിക മേഖലയിൽ എങ്ങനെ വളർത്താം എന്നുള്ളതിൽ അവർ ചിന്തിക്കുകയും അതിനെ മുന്നോട്ട് നയിക്കാൻ അവർ ഒരുപാട് ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി ഒരു കായിക മേഖലയിൽ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ തുടർന്ന് ആ അതിനുള്ള എല്ലാ സഹകരണ സഹകരണങ്ങളും ആ സ്കൂളിൽനിന്ന് ലഭിക്കുന്നു കാരണം ഇപ്പോൾ ഒരു വ്യക്തിക്ക് ചാടാൻ ആണെങ്കിൽ ആ കുട്ടിക്ക് അതിനുള്ള പ്രാക്ടീസ് അതിനുള്ള പരിശീലനം സ്കൂളിൽനിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോഴ് കൂടുതൽ കൂടുതൽ മെച്ചതയോട് ഓടുവാനും കൂടുതൽ കൂടുതൽ കാര്യം കൂടുതൽ കൂടുതൽ പുരോഗതി അവനിൽത്തന്നെ വളർത്തുവാനും സ്കൂളുകൾ സഹായിക്കുന്നു ഇപ്പോൾ ഒരു കുട്ടി ചാടാനാണ് ചാടാനാണ് അവൻ്റെ കഴിവ് എങ്കിൽ ആ സ്കൂളുകളിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും ഓരോ ടീച്ചേഴ്സ് അവരുടെ കഴിവ് മനസിലാക്കുകയും ആ അവസരങ്ങൾ സ്പോർട്സ് ഡേ അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരെ മനസിലാക്കിയിട്ട് അവരുടെ കഴിവുകൾ കൂടുതൽ വർദ്ധിച്ച് കൊണ്ടുവരുക കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ഒരുപാട് ഒരുപാട് സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ ആ ഒരു കഴിവ് തെളിയിക്കുകയാണെങ്കിൽ തുടർന്ന് ആ ഒരു കഴിവിനെ എങ്ങനെ ഏറ്റവും കൂടുതൽ വളർത്തിയെടുക്കും എന്ന് ഓരോ ടീച്ചേഴ്സിനും അറിയാം അപ്പോൾ അവർ അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ ഓരോ കുട്ടികളുടെയും എന്താ പറയുക കഴിവ് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ആ കായിക മേഖലയിലുള്ള അവരുടെ കഴിവ് വളർത്തിയെടുക്കാൻ ഒരുപാട് ഒരുപാട് സഹായിക്കുന്നുണ്ട് എങ്ങനെ ഒത്തിരി അനവധി അവസരങ്ങളാണ് സ്കൂളിൽ ലഭിക്കുന്നത് സ്പോർട്സ് ഡേ വരുന്നുണ്ട് അല്ലാണ്ട് ഉപജില്ല ജില്ലാതല മത്സരങ്ങൾ വരുന്നുണ്ട് ഈ ജില്ലാ ഉപജില്ലാ തല മത്സരങ്ങൾ വരുമ്പോഴ് കുട്ടികൾ സ്വയം എന്താ പറയുക ആ ഒരു മത്സരത്തിന് മത്സരത്തിന് തയ്യാറാവുകയും ആ തയ്യാറാവുന്നത് തന്നെ എന്താ പറയുക അവരുടെ കായിക പ്രവർത്തനത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവിനെ വർദ്ധിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ് ഈ അപ്പം ഇവർക്ക് ഇങ്ങനെ ഓരോ കലാ ഓരോ പരുപാടികൾ നമ്മൾ ഇങ്ങനെ നടത്തുന്ന വഴിയായിട്ട് കുട്ടികൾ കുട്ടികൾ അവരുടെ അവരുടെ കഴിവ് എന്തെന്ന് മനസിലാക്കുകയും അങ്ങനെ ആ കഴിവിനെ മെച്ചപ്പെടുത്താൻ അവർ സ്വയം പ്രയത്നിക്കയും ഈ സ്വയം പ്രയത്നിക്കും അങ്ങനെ സ്വയം പ്രയത്നിച്ച് അവർക്ക് ഇന്നതിൽ കഴിവുണ്ടെന്ന് അവർ തെളിയിക്കുകയാണെങ്കിൽ ബാക്കി സ്കൂളുകളിൽ നിന്ന് ആ ഒരു കഴിവിനെ എങ്ങനെ വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ടീച്ചേഴ്സ് മനസിലാക്കുകയും ആ കഴിവിനെ വർദ്ധിപ്പിക്കാൻ അവർ സഹായിക്കുകയും ചെയ്യും അതിനായിട്ടുള്ള ആവശ്യമായ സാധനങ്ങൾ നല്കിയിട്ട് ആണെങ്കിലും അതിനുള്ള ആവശ്യമായ പരിശീലനം നല്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഒത്തിരി അനവധി അവസരങ്ങളാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത് ആ അവസരങ്ങൾ കുട്ടികൾ മുതലാക്കുകയാണെങ്കിൽ ഭാവിയിൽ അവൾ അവർ വളർന്ന് വരുവാനും അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാനും ഈ കുട്ടികൾക്ക് സാധിക്കും ഇപ്പത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കുട്ടികൾക്ക് നല്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിയും വളർന്ന് വരുന്ന അവരുടെ കായിക കായിക മേഖലകളിലെ അവരുടെ കഴിവ് മനസിലാക്കി എടുക്കുന്നത് സ്കൂളുകളിൽനിന്നാണ് കാരണം സ്കൂളുകളിൽ നടത്തുന്ന ഓട്ട കായിക മത്സരങ്ങൾ ഒട്ടവും ചാട്ടവും പോലുള്ള മത്സരങ്ങൾ കൂടാണ്ട് സ്കൂളുകളിൽ നൽകുന്ന കളികൾ ഓരോ കളി കളിക്കാനുള്ള സമയങ്ങളിൽ കുട്ടികൾ അവരുടെ കായിക മേഖലകളിൽ കഴിവ് കണ്ട് പിടിക്കുകയാണ് കാരണം ഇപ്പം ഒരു ഒരു ക്ളാസ്സിലെ ഒരു സമയം അവർക്ക് കളിക്കാൻ അവസരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവർ ഒരുപാട് ഒരുപാട് കളികൾ നൽകും ഓട്ടവും ചാട്ടവും കൂടാണ്ട് അത് മറ്റ് കായിക മേഖലകൾ ഉണ്ട് കളികളാണ് ഫുട്ബാള് ക്രിക്കറ്റ് വോളിബോള് ഒരുപാട് കായിക മേഖലകളിലെ കളികൾ സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി അതിൽ പ്രാധാന്യം നൽകുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിൻറ്റെതായ എന്താ പറയുക പരിശീലനം സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കൂടാണ്ട് ഈ കളികൾ ഈ സ്കൂളുകളിൽ ഈ കളിക്കാൻ അവർക്ക് കൊടുക്കുന്ന അവസരങ്ങൾ വേറെ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള അവസരങ്ങളാണ് സ്കൂളുകളിൽ അവർക്ക് നൽകുന്നത് കാരണം സ്കൂളുകളിൽ അതിനാവശ്യമായ സാധനങ്ങൾ വസ്തുക്കൾ ഉണ്ട് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഫുട്ബോള് കളിക്കാനുള്ള പന്തും അത് അതിന് കളിക്കാനുള്ള ബൂട്ട് പാഡ് അങ്ങനെത്തെയുള്ള വസ്തുക്കളക്കെ സ്കൂളുകളിൽ ലഭ്യമാണ് അപ്പോൾ ഈ ലഭ്യമായ വസ്തുക്കൾ വെച്ച് കുട്ടികൾക്ക് കളിക്കുവാനും എല്ലാ കുട്ടികൾക്ക് കളിക്കാനും സാധിക്കും കാരണം ചില കുട്ടികൾക്ക് അവർ പാവപ്പെട്ടവരാകാം അവർ എന്താ പറയുക അവർക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു വസ്തു അല്ലെങ്കിൽ ഫുട്ബോള് കളിക്കാൻ ഫുട്ബോള് കളിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ ഫുട്ബോള് കളിക്കാനുള്ള ബോള് അവൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ സ്കൂളിൽ അതുണ്ടാവും സ്കൂളിൽ അത് ലഭ്യമാണ് അപ്പോൾ അതുവഴിയായിട്ടും സ്കൂള് ആ ഒരു കുട്ടീൻ്റെ ആ ഒരു കായിക മേഖലയിലുള്ള കഴിവിനെ വർദ്ധിക്കാൻ സഹായിക്കുകയാണ് ഇപ്പോൾ ക്രിക്കെറ്റ് കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ആവശ്യമായ പാഡ് ജെഴ്സി ബൂട്ട് ബോള് ബാറ്റ് ഇതൊക്കെ ആ കുട്ടിക്ക് ഇല്ലെങ്കിൽ സ്കൂളുകളിൽ അത് ലഭ്യമാണ് അപ്പോൾ സ്കൂളുകളിൽ ആ ഒരു കുട്ടീനെ ആ ഒരു കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് അങ്ങനെ ഇത്തരം ഇത്തരം ഒരു ഒട്ടനവധി ഒട്ടനവധി എന്ന് പറഞ്ഞാൽ ഒട്ടനവധി സാഹചര്യങ്ങളിലൂടെ ഒരു കുട്ടീനെ കായിക മേഖലയിലുള്ള കായിക മേഖലകളിലുള്ള അവൻ്റെ കഴിവിനെ ഇങ്ങനെ വളർത്താനുള്ള അവസരങ്ങൾ സ്കൂളുകളിൽ ലഭ്യമാണ് പിന്നെ സ്കൂളുകളിൽ അവർക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു വലിയ ഗ്രൗണ്ട് ഉള്ളത് വഴിയായിട്ട് കുട്ടികൾക്ക് ശരിക്കും ഓടുകയും ചാടുകയും അവരുടെ ആ ഒരു ഫിസിക്കൽ പവറ്നെ മനസിലാക്കുവാനും അവരുടെ ആ ഒരു കായിക ബലത്തെ അവരുടെ കായിക അവസരങ്ങൾ എന്തെന്ന് അവർക്ക് തന്നെ സ്വയം മനസിലാക്കുവാൻ സ്കൂളുകൾ ഒറ്റ ഒരുപാട് ഒരുപാട് സഹായിക്കുന്നുണ്ട്